ആ ഇത് സെൻറ് തോമസ് സ്കൂൾ ആയിരുന്നു ആരായിരുന്നു ആ ആ ആ ചേർക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു ആ ഇപ്പോൾ കുറേ പോഷൻസ് ഒക്കെ അങ്ങ് എത്തിയിട്ടുണ്ട് കാരണമെന്നു വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓണം കഴിഞ്ഞ് ഇത്രയും മാസം ആയില്ലേ നമുക്ക് ജൂണിലാണ് ക്ലാസ് തുടങ്ങിയത് ആണല്ലേ ഓക്കെ ഓക്കെ ആ ഓക്കെ ആ കണ്ടിന്യൂ ചെയ്യാം കണ്ടിന്യൂ ചെയ്യുന്നതിന് കുഴപ്പം ഒന്നും ഇല്ല ഇപ്പോൾ നാലാം ക്ലാസിൽ ആണ് അല്ലേ നാലാം ക്ലാസിൽ ഞാൻ ഒന്നു നോക്കട്ടെ ഇതിനകത്ത് എത്ര വേക്കൻസി ഉണ്ട് എന്ന് ഒരു മിനുട്ട് ഹോൾഡ് ചെയ്യണേ ആ കുഴപ്പം ഇല്ല അതിനകത്ത് നാലാം ക്ലാസിൽ നമുക്ക് ചേർക്കാം കുഴപ്പമില്ല രണ്ടു കുട്ടികൾ കുറവുണ്ട് അപ്പം ചേർക്കുന്നതിന് കുഴപ്പം ഒന്നും ഇല്ല ഇപ്പം അഥവാ അവിടത്തെ പോഷൻ അല്ല ഇവിടെ എങ്കിൽ നമുക്ക് പരമാവധി നമുക്ക് ഓൺലൈൻ ക്ലാസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും ആ അപ്പോൾ നല്ലോണം പഠിക്കുന്ന കുട്ടി ആണോ തൊണ്ണൂറ്റിയഞ്ച് ഉണ്ടല്ലേ ആ ആ ഓക്കെ ഓക്കെ

ആ ഓക്കെ ഓക്കെ അപ്പം കുഴപ്പമില്ല നമുക്ക് ഇവിടെ ചേർക്കാൻ വേണ്ടി സാധിക്കും പിന്നെ ആ നമ്മുടെ ഡൊണേഷൻ ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അൻപതിനായിരം രൂപയാണ് ഡൊണേഷൻ വരുന്നത് പിന്നെ ഫീസും കാര്യങ്ങളും ഒക്കെ ഫീസ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആറായിരം രൂപ വെച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ സ്പോർട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് അഡീഷണൽ പേ ചെയ്യണം പിന്നെ യൂണിഫോമും കാര്യങ്ങളും ഒക്കെ നമ്മൾക്ക് ഒരു മാസത്തിനുള്ളിൽ നമ്മൾക്ക് ഇവിടുന്നു തന്നെ റെഡി ആക്കാൻ വേണ്ടി സാധിക്കും ഇവിടെനിന്ന് തന്നെ അടിച്ചു തരും അവർ വന്ന് അളവ് എടുത്തിട്ട് ഇവിടെനിന്ന് തന്നെ അടിച്ചു തരും അപ്പോൾ അതിനുള്ള റ്റ പേയ്മെന്റ് തന്നാൽ മതി ആ പിന്നെ ബുക്കിൻ്റെയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ബുക്ക് ബുക്കിൻ്റെ ഒക്കെ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യണം ഇല്ല ഇൻ്റർവ്യൂ ഒന്നും ഇല്ല വന്നാൽ മതി ഓക്കെ എന്നാൽ വന്നാൽ മതി നാളെ വന്നാൽ മതി ആ ഓക്കെ